എൻ്റെ മാതൃഭാഷ മലയാളമാണ് ഞാൻ വായിച്ചിട്ടുള്ള ബുക്കെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആലീസ് ഇൻ വണ്ടർലാൻഡ് അത് മലയാളത്തിലേക്ക് തർജമചെയ്തത് ഇതാണ് ഇത് ലൂയിസ് കരോളിൻ്റെ ദ ആലീസ് അഡ്വൻചേഴ്സ് ഓഫ് വണ്ടർലാന്ഡ് എന്നു പറഞ്ഞ ബുക്കാണ് അത് ആലീസ് ഇൻ വണ്ടർലാൻഡെന്നുള്ള പേരിലാണ് പിന്നെ അത് തർജമ ചെയ്യപ്പെട്ടത് എൻ്റെ കുട്ടിക്കാലത്ത് അത് വളരെ നല്ലൊരനുഭവമാണ് എനിക്ക് തന്നിട്ടുള്ളത് അതുപോലെതന്നെ ആലീസ് എന്നൊരു കുട്ടി ഒരു മുയലിനെ പിന്തുടർന്ന് പോകവെ ഒരു കാട്ടിലേക്ക് പോവുകയും അവിടുള്ള അത്ഭുത കാഴ്ച്ചകളും ഒക്കെയാണ് അതില് പ്രതിപാദിക്കുന്നത് അതു നല്ലൊരു സ്റ്റോറി കൂടിയാണ് ത്രില്ലിങ്ങാണ് അതുപോലെ തന്നെ എനിക്ക് മലയാളത്തിൽ ഇഷ്ടപ്പെട്ട വേറൊരെണ്ണം ചന്തു മേനോൻ്റെ ഇന്ദുലേഖ എന്നൊരു ബുക്ക് അത് മാക്സിമം ട്രാൻസ്ലേറ്റ് ചെയ്ത് അതുപോലെ എല്ലാവരിലേക്കും എത്തിക്കുകയാണെങ്കിൽ നല്ലൊരു കഥയാണ്